എനിക്ക് മറ്റേ ഹ്യൂമൺ മനുഷ്യന്മാരുടെ ഫോട്ടോ എടുക്കാനും താൽപര്യമുണ്ട് വയിൽഡ് കാട് മറ്റേ കാട്ടിൽ പോയിട്ട് മൃഗങ്ങളുടെയും മരങ്ങളുടെയും എല്ലാം എനിക്ക് ഇഷ്ടമാണ് കൂടുതൽ എടുക്കാറുള്ളത് ഫോണിലൂടെ ഫോണിലൂടെയാണ് ഫോണിലൂടെ ഫോട്ടോ എടുത്തിട്ട് അത് നല്ല എഡിറ്റ് ചെയ്യുകയാണ് എൻ്റെ എൻ്റെ ഇത് ഞാൻ ക്യാമറ കിട്ടിയാൽ വന്യ വന്യ ഇവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ എല്ലാം എനിക്കിഷ്ടമാണ് മറ്റേ അന്യ അന്യ നാട്ടിൽപ്പോയിട്ട് ഓരോ നാട്ടിൽ ഇന്ത്യയ്ക്ക് പുറത്തും അങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ അ അവിടെയെല്ലാം നല്ല കാട് കാര്യങ്ങളുണ്ട് ഫോട്ടോ എടുക്കാൻ നമുക്ക് ഇപ്പം മനസ്സിലാവുമല്ലോ അതേപോലെ കുറേ കാര്യങ്ങളുണ്ട് അവിടെ ഫോട്ടോ എടുക്കാനായിട്ട്